മത്സ്യബന്ധനം നടത്തുമ്പോൾ കൂടുതലായിട്ടും കുറേ വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് മെയിനായിട്ട് കാലാവസ്ഥേൻ്റെ വെല്ലുവിളി കാര്യങ്ങളൊക്കെയാണ് നേരിടേണ്ടി വന്നത് അപ്പം നമ്മളിപ്പോൾ കടലിൽ പോയിട്ട് വലയൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും വലിയ മഴയും കാറ്റൊക്കെ വരുന്നത് അപ്പം ഈ കാലാവസ്ഥ പ്രവചനം ഒക്കെ കൂടുതലായിട്ടും ഞാൻ പലപ്പോഴും തെറ്റാറാണ് പതിവ് ചില സമയങ്ങളിൽ അവർ പറയുന്നത് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റാറുണ്ട് അപ്പം അത് ഒരു വിഷയമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പെട്ടെന്നുള്ള ചുഴലിക്കാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം മെയിനായിട്ട് വല്ലാണ്ട് തിരയടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ല രീതിലുള്ള മോശവും മോശപ്പെട്ട അനുഭവങ്ങളൊക്കെയാണ് കുടുതലായിട്ടും ഉള്ളത് ഇപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചുഴലിക്കാറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ മറയാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കാരണം തിര വല്ലാണ്ടടിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉൾക്കടലിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വഞ്ചി നമ്മുടെ ബോട്ടൊക്കെ മറയാനുള്ള സാദ്ധ്യതകൾ ഒക്കെ കൂടുതലാണ് ഇങ്ങനെ ഒരനുഭവം നമുക്ക് ഉണ്ടായിട്ട് തന്നെ ഉണ്ട്